ആ ഞാനേ കോഴിക്കോടിന്ന് വിളിക്കുവാണ് ആ എനിക്ക് രണ്ട് ദിവസം ആയിട്ട് കുറച്ച് രണ്ട് ദിവസം മുമ്പ് പനി തുടങ്ങി ആയിരുന്നെ

ഇല്ല കുറച്ച് തണുത്ത വെള്ളം കുടിച്ചിരുന്നു

ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ആയിരുന്നു ഇല്ല ഞാൻ എടുത്തപാടെ കുടിക്കുകയാ ചെയ്തത്

ആ ഇവിടെ വീട്ടിൽ ഇരിക്കുന്ന് ഉണ്ടായിരുന്നു കുറച്ച് അപ്പം ഞാൻ അത് ഫുഡ്ഡ് കഴിച്ച് കഴിഞ്ഞിട്ട് രണ്ട് നേരം കഴിച്ചിരുന്നു ഇല്ല കുറവില്ല പാരസെറ്റമോള് ആ കുറച്ച് ഒര് രണ്ട് തവണ ഉണ്ട് പനീന്ന് പറഞ്ഞിട്ട് ഉണ്ടെങ്കിൽ നല്ല അത്യാവശ്യം നല്ല രീതിയിൽ ഉണ്ട് പിന്നെ കഫക്കെട്ട് ജലദോഷം തുമ്മൽ ഒക്കെ ഉണ്ട്

ആ ചുമ ഉണ്ട് ആ തൊണ്ടവേദന ഒക്കെ ഉണ്ട്

ആ വേ പെയിൻ ഉണ്ട് ആ വരാം വരാം എന്നാ വരണ്ടത് ആ ഓക്കെ ആ ഓക്കെ ഓക്കെ